ഈ ആധുനിക യുഗത്തിൽ മലയാള ഭാഷയുടെ സംരക്ഷണം എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് മലയാളികളായ പല കുട്ടികളും കേരളത്തിൽ താമസിക്കുന്ന പല കുട്ടികൾക്കും മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്ത സാഹചര്യമാണ് കണ്ട് വരുന്നത് എന്നാൽ ഇത് നാം അധികനാൾ കൊണ്ടു നടക്കാൻ പാടുള്ളതല്ല കാരണം ഓരോ കുട്ടിയും മലയാളിയായി ജനിച്ച് വീഴുമ്പോൾ അവൻ്റെ പെറ്റമ്മയായ മാതൃഭാഷയെ മലയാളത്തെ അവൻ സ്നേഹിക്കേണ്ടതാണ് അവന് സ്കൂളിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും വീട്ടിൽ നിന്നും അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബാംഗങ്ങളോ മലയാളം എഴുതാനോ വായിക്കാനോ പഠിപ്പിക്കുക എന്നത് വളരെ അനിവാര്യമായൊരു കാര്യം തന്നെയാണ് ഇന്ത്യൻ ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ കേരള ഗവണ്മെൻറ്റും അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മലയാള ദിനാചരണമായി മലയാളം കുട്ടികളിലെത്തിക്കാൻ ശ്രമിക്കുകയും മലയാളം പറയാൻ കൂടുതലവരെ പ്രേരിപ്പിക്കുകയും ഇംഗ്ലീഷിനോടൊപ്പം തന്നെ മലയാളവും പ്രാധാന്യമുള്ളതാണ് എന്നവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും ഇനി വരും തലമുറക്ക് മലയാളത്തെ മറന്ന് പോവാതിരിക്കാൻ അത്യാവശ്യം തന്നെയാണ് നാമോരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ മലയാളം എന്ന വ ഭാഷ പഠിപ്പിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് മലയാളമറിയില്ല എന്നത് ഒരു നല്ല കാര്യമായി കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളുള്ള ഈ നാട്ടിൽ മലയാളം പഠിക്കാതെ ഒരു മലയാളി ആവുക എന്നത് ചിന്തിക്കാൻ കഴിയുന്നതല്ല ഞാൻ ഇംഗ്ലീഷേ പഠിക്കൂ എനിക്ക് ഇംഗ്ലീഷേ സംസാരിക്കാനേ അറിയൂ എന്ന് അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷേ വായിക്കാനും എഴുതാനും അറിയൂ എന്നുള്ളത് അതൊരു ഗുണകരമായ കാര്യമായി കൊണ്ട് നടക്കുമ്പോൾ മലയാളം അറിയാമെന്ന് പറയുന്നത് നാണക്കേടായി തോന്നുകയാണ് കുട്ടികൾക്ക് ഇത് വളരെ അപകടകരമായൊരു സിറ്റുവേഷനാണ് ഇതിനെ നമ്മൾ എല്ലാവരും ഒറ്റകെട്ടായി തരണം ചെയ്യണം നാം കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കണം നമ്മുടെ മാതൃഭാഷയുടെ പ്രാധാന്യവും അതിൻ്റെ ഗുണങ്ങളും നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം നമുക്ക് തുറന്ന് പറയാൻ നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ഏറ്റവും ഉത്തമം നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും പുറത്ത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ പുറത്തേക്കെത്തിക്കാൻ മാതൃഭാഷയോളം വരില്ല മറ്റൊരു ഭാഷയും അതുകൊണ്ട് തന്നെ മാതൃഭാഷയുടെ ആവശ്യകത വളരെ വലുത് തന്നെയാണ്